ആ ഹലോ ഞാൻ ഒരു പെഡിക്യൂറിന് ചെയ്യാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വിളിച്ചതാണ് ഞാൻ ചാലക്കുടിയിലാണ് താമസിക്കുന്നത് ആ ഫീറ്റ് ഫീറ്റ് നെയിൽ അപ്പോയിൻമെൻറ്റ് മതി ക്ലീനിങ്ങ് ഉണ്ടാവില്ലേ ഫീറ്റ് ക്ലീനിങ്ങ്

ഓ ടു തൗസൻഡ് ഉണ്ടല്ലേ

ആ റേറ്റ് വരെ ആ അപ്പോൾ എനിക്കിപ്പോൾ ക്ലീനിങ്ങും നെയിൽ നെയിലിൻ്റെ ആർട്ടും മതി മസാജിങ്ങ് വേണ്ട

ആ നോക്ക് നാളേക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ നാളെ നാളെ

എനിക്കിപ്പോൾ ഒരു ഈവനിങ്ങ് ഒരു ഫൈവ് ഒ ക്ലോക്ക് ആവുമ്പോഴാണ് വരാൻ പറ്റുള്ളൂ ഓ നമുക്കത് എത്ര ടൈം എടുക്കും അത് ചെയ്യാൻ ആ വൺ അവർ മതി അല്ലേ ആ ആ ആ വേണ്ട വേണ്ട അപ്പോൾ നമുക്ക് നാളെ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നാണ് ഫ്രീ ആയിട്ടുള്ളത് ഓ സൺഡേ നമുക്ക് ഇച്ചിരി ബിസി ആണേ ആ മൺഡേ ഒരു ഫൈവ് ആവുമ്പോൾ വന്നാൽ ഓക്കെ ആണോ ആ ഞാൻ എന്നെ റെക്കമെൻഡ് ചെയ്ത എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ് ആളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആൾ ചെയ്തിട്ട് എനിക്ക് കാണിച്ച് തന്നു അപ്പോൾ എനിക്ക് അത് ഇഷ്ടമായി അങ്ങനെ ഞാൻ വരാമെന്ന് വിചാരിച്ചു ആ അത് ഞാൻ അത് ഞാൻ ചെയ്യാം ആ അപ്പോൾ ആ ആ ബുക്ക് ബുക്ക് ചെയ്ത് വയ്ക്കണോ എന്തെങ്കിലും ഇപ്പം തന്നെ അഡ്വാൻസ് ക്യാഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

ആ ഓക്കെ

ആ ആ ആ ഓക്കെ പൈസ അപ്പോൾ എങ്ങനെയാണ് അവിടെ വന്നിട്ട് അന്ന് തന്നാൽ മതിയോ ആ ഓക്കെ അപ്പോൾ ഞാൻ അന്ന് പേ ചെയ്യാം ആ ഓക്കെ താങ്ക് യൂ